നമുക്കെന്നും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ജന്മദിനങ്ങൾ വിവാഹങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങൾ അതെന്നും കൂട്ടുകാരുമായോ അല്ലെങ്കിൽ വീട്ടുകാരുമായോ ഒക്കെ ആഘോഷിക്കാനാണ് ഒരു സാധാരണ മലയാളിക്കിഷ്ട്ടം ആഘോഷങ്ങള് എന്നു പറയുമ്പോൾ അതെല്ലാവരും കൂടിയുള്ള ഒത്തുകൂടലാണ് ഏതൊരു സന്തോഷകാര്യത്തിനും നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഭക്ഷണവും കളികളും പാട്ടുകളും എല്ലാമായി സമയം പോകുന്നതേ നമ്മളറിയില്ല പണ്ടൊരിക്കൽ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയത് എനിക്കിപ്പോഴും മറക്കാനാവാത്തൊരു അനുഭവമാണ് തലേദിവസം എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നതിനാൽ ഞങ്ങള് തലേദിവസം തന്നെ വീട്ടിലെത്തി ഞങ്ങളൊരു അഞ്ച് എട്ടു പേരുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി അവൻ്റെ വീട്ടിലാണ് താമസിച്ചത് എന്തു രസമായിരുന്നെന്നോ അവിടുത്തെ ബന്ധുക്കളും അവിടുത്തെ നാട്ടുകാരും ഒന്നും നമുക്ക് പരിചയം ഇല്ലാത്തവരാണെങ്കിൽ കൂടിയും തലേദിവസം എത്തിയതു കൊണ്ടുതന്നെ എല്ലാവരുമായി ഞങ്ങൾ പരിചിതരായി അന്ന് രാത്രി കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചേർന്ന് കളികളും പാട്ടുകളും ഡാൻസും അങ്ങനെ അവരുടെ കസിൻസും അവരുടെ ബന്ധുക്കളും എല്ലാവരും ഞങ്ങളുടെ കൂടെ ബന്ധുക്കളായി തോന്നി അവരുടെ വീട്ടുകാരെല്ലാം ഇന്നും ഞങ്ങളുടെ വീട്ടുകാരാണ് ഇതുകഴിഞ്ഞ് എൻ്റെ കല്യാണം വന്നപ്പോൾ എൻ്റെ ബന്ധുക്കളേയും ഞാൻ വിളിക്കാൻ മറന്നെങ്കിൽ പോലും ആ കൂട്ടുകാരൻ്റെ ബന്ധുക്കളെ ഞാൻ മറന്നില്ല അന്ന് കല്യാണം കഴിഞ്ഞ് പിരിയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു സങ്കടം അവരെ പിരിഞ്ഞ് പോരുകയാണല്ലോ എന്ന സങ്കടം പിന്നീട് എപ്പോൾ കൂട്ടുകാരനെ കാണുമ്പഴും ആ വീട്ടുകാരെ പറ്റി അന്വേഷിക്കാനാണ് ഞങ്ങൾക്ക് തിടുക്കം ഞങ്ങളുടെ വീട്ടുകാരേക്കാളും ഞങ്ങളുടെ മനസ്സിലേക്ക് അവർ കയറിപറ്റിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരുകാരുടെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെ ഇന്ന ബന്ധുക്കൾ ഇന്ന വീട്ടുകാർ ഇന്ന കൂട്ടുകാർ എന്നൊന്നും ഇല്ല നമുക്ക് എല്ലാവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരും തന്നെ അതിനിപ്പം കല്യാണം ആയാലും ശരി വിവാഹം ആയാലും ശരി മറ്റെന്തൊരു പാർട്ടി ആയാലും നമുക്കെല്ലാവരും ഒത്തുകൂടണം സന്തോഷിക്കണം ആഘോഷിക്കണം അത്രേയുള്ളൂ ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെയുള്ള ഫങ്ക്ഷനൊക്കെയാണെങ്കിൽ നമ്മളൽപ്പം ഭക്ഷണം പുറത്ത് നിന്ന് പറയും പുറത്ത് നിന്ന് ഓർഡർ ചെയ്യുന്ന ഭക്ഷണമായാലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായാലും ഒന്നിച്ചു കഴിക്കുമ്പോൾ ഏതിൻ്റെ ആയായാലും രുചി കൂടുമെന്നത് ഉറപ്പാണ് വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ച് പാചകം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം കറിക്ക് നുറുക്കാനും പാചകം ചെയ്യാനും പാചകത്തിൻ്റെ ഇടയിൽ വാചകത്തിനും എല്ലാത്തിനും ഒര് പ്രത്യേക രസം തന്നെയാണ് വിവാഹങ്ങളൊക്കെ നമ്മള് പൊതുവേ കാറ്ററിംഗോ അല്ലെങ്കിൽ സദ്യയൊക്കെ പുറത്ത് ഏൽപ്പിക്കുക ആണ് ചെയ്യുക കൂട്ടുകാരൻ്റെ കല്യാണത്തിനും അങ്ങനെ തന്നെയായിരുന്നു സദ്യ സൂപ്പറായിരുന്നു നമ്മൾ കഴിക്കാത്ത രുചി വിഭവങ്ങൾ കിട്ടും നമ്മൾ കഴിക്കാത്ത കാര്യങ്ങള് കിട്ടും ഒന്നിലധികം പായസം അങ്ങനെ നമുക്കത് തന്നെ വല്ലപ്പോഴും കിട്ടുന്നൊരു അസുലഭ നിമിഷമാണ് അത് നമ്മള് മാക്സിമം ആഘോഷിക്കും